കാനറാ ബാങ്കിലെ മാനേജറാണോ ആ ഞാൻ വിളിച്ച എന്താന്ന് വച്ചാൽ ഗോൾഡ് ലോണിനെ കുറിച്ചറിയാൻ വേണ്ടിയായിരുന്നു എനിക്കൊരു ലോൺ എടുക്കണമെന്ന് ഉണ്ടായിരുന്നു

ആണല്ലേ അപ്പോൾ ഈ ഒരു പവൻ വച്ച് ജസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഒക്കെ എത്രയായി അപ്പം

അപ്പം ഇതിൻ്റെ അടവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതായത് ഇതിപ്പോൾ ഇത്ര

ആ ഇപ്പോൾ ഒരു പ പവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തി ഏഴല്ലേ ആ അപ്പം അതിന് മാസത്തിന് എത്ര അടവ് വച്ച് വരും ആണല്ലേ മ്

ആ ഒര് ബിസിനസ്സ് കാര്യത്തിന് വേണ്ടി ആയിരുന്നു അപ്പോൾ ക്യാഷൊന്നും അങ്ങ് അഡ്ജസ്റ്റ് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ക്യാഷൊന്നും അഡ്ജസ്റ്റായില്ല അപ്പം കുറച്ച് ഗോൾഡ് ഇരിക്കുന്നുണ്ട് അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് ലോടാണെടുക്കാൻ പറ്റുവൊന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു ആണല്ലേ ആ ഇതിപ്പോൾ നമുക്ക് ഒത്തിരി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ക്യാഷ് അറേഞ്ച് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയായിരുന്നു ഈ ഗോൾഡ് വച്ചിട്ട് ആ അപ്പോൾ എങ്ങനെ ഗോൾഡായിട്ടു വരണോ അതോ ജസ്റ്റ് വന്നിട്ട് അറിഞ്ഞിട്ടു ഇതാക്കിയാൽ മതിയോ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ